വരൂ വരു വരു ഇരിക്കൂ ആ ആരുടെ പേരന്റാണ് അതെയോ ഓക്കെ ഓക്കെ നമ്മള് ആ അതെ അവർക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാർക്ക് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ആ മോന് കുഴപ്പമില്ലാത്ത മാർക്കുകളാണ് ആൾ നന്നായി പഠിക്കുന്നുണ്ട് ഇടയ്ക്ക് വാശിയുണ്ടെങ്കിലും കുഴപ്പമില്ല ആൾ നന്നായി പഠിക്കുന്നുണ്ട് ആ ആൾക്ക് എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്കുകളുണ്ട് ഇപ്പോൾ കുറവെന്നു പറയാൻ ആൾക്കൊന്നുമില്ല അപ്പോൾ വീട്ടിലെങ്ങനെയാണ് അവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഓക്കെ ഓക്കെ ആ എന്തായാലും നല്ല കാര്യമാണ് മോൻ പഠിക്കുന്നുണ്ട് എന്തായാലും മറ്റുള്ള കുട്ടികളെപ്പോലെയല്ല ആള് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രമാണ് ആൾക്കൊന്ന് കളിവിചാരം ഉള്ളു അല്ലാത്ത സമയത്ത് ആൾ ഓക്കെയാണ് ആ ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ മാത്സിലും മാത്സിലൊന്ന് കുറച്ച് ഇത് മാർക്കിൻ്റെ ഒന്ന് പ്രശ്നം വന്നിരുന്നു ബാക്കിയെല്ലാം അവൻ ഓക്കെയാണ് ജി കെയും അത്യാവശ്യം കുഴപ്പമില്ല ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല മലയാളം അത്യാവശ്യം അല്ല നന്നായി എഴുതുന്നുണ്ട് മാത്സ് മാത്രം ചെറുതായിട്ടൊന്ന് ആള് ഒരു ഒരഞ്ച് മാർക്കിൻ്റെ ഒന്നു കുറഞ്ഞായിരുന്നു അപ്പോൾ ഒന്ന് അടുത്ത പ്രാവശ്യം ആ അതെ നമ്മൾ ആ നമ്മളിവിടെ പിന്നെ അത്യാവശ്യം ആ നന്നായിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ പോയാലും ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി ആളെ അത്രക്കു ശ്രദ്ധിക്കേണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവൻ പറഞ്ഞു കൊടുത്താൽ അവന് നന്നായി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പിന്നെ വീട്ടിലൊന്ന് വൈഫിനോടൊന്ന് പറഞ്ഞാൽ മതി ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി അല്ലാത്ത ഓക്കെയാണ് ട്യൂഷൻ ഇല്ല അത് നിങ്ങൾ നോക്കിയിട്ട് വിട്ടാൽ മതി വൈഫിന് ബുദ്ധിമുട്ടാവില്ലായെന്ന് ബുദ്ധിമുട്ട് ആവില്ലെങ്കിൽ മാത്രം ഇപ്പോഴും ഇതിപ്പൊൾ സെക്കന്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് അത്രക്കൊന്നുമുണ്ടാവില്ല നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതേയുള്ളു അപ്പോൾ ആളെ ഒന്ന് അതെയല്ലേ

ആ നമ്മൾ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല ആളെ ഇപ്പോൾ ആൾക്ക് സമാധാനത്തോടെ ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മതി അത്യാവശ്യം എല്ലാം ആൾക്ക് അറിയാം എന്നാലും ചെറുത് എവിടയോ ഒന്ന് ആളൊന്ന് ഒന്നു പുറകോട്ടാണ് കുറച്ച് വളരെക്കുറച്ച് ആ ബാക്കി ബാക്കിയെല്ലാ സബ്ജക്റ്റും ഓക്കെയാണ് മിടുക്കനാണ് അത്യാവശ്യം ആ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്ക് ആ ഓക്കെ